ആ പറഞ്ഞോളൂ സാർ നമ്മൾ ഇത് ഹുണ്ടായിൻ്റെ ഷോറൂമിൽ നിന്നാണ് എങ്ങനെയാണ് പ്രീമിയം മോഡൽ ആണോ സാർ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം എന്താണ് പറയുക സ്റ്റാൻഡേർഡ് ഉള്ള ടൈപ്പ് ആണോ വേണ്ടത് ആ നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ സാറിൻ്റെ ബഡ്ജറ്റ് ഒരു നയൻ ലാക്സ് ഒക്കെ ഉണ്ടാവുമോ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ട്വന്റി എടുക്കാം സാർ ഐ ട്വന്റി ആണിപ്പോൾ പ്രീമിയം ലുക്കിൽ വരുന്ന വണ്ടി മറ്റേ സ്പോർട്സ് ടൈപ്പ് ആണ് സാർ നമുക്ക് എന്താണ് പറയുക ഫാമിലി യൂസിനൊക്കെ അടിപൊളിയാണ് ഇൻറ്ററസ്റ്റ് ഇല്ല അല്ലേ പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രെറ്റ ഒക്കെയാണ് വരിക ക്രെറ്റ വെന്യു അങ്ങനെ ക്രെറ്റ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപ ഒക്കെ വരും സാർ ലോ ഓപ്ഷൻ ആണെങ്കിൽ പതിനാല് പോയിൻറ്റ് അഞ്ചൊക്കെ വരും ഫീച്ചേഴ്സ് സാർ അത് നോർമൽ ആയിരിക്കും അതിന് പവർ വിൻഡോസ് രണ്ടെണ്ണമേ ഉണ്ടാവുള്ളൂ ആ രണ്ട് എയർബാഗ് പിന്നെ നോർമൽ സെറ്റ് ആയിരിക്കും ഉണ്ടാവുക സ്റ്റീരിയോയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അതൊക്കെ നമുക്ക് അഡീഷണൽ ചെയ്യാം ഒരു തേർട്ടീൻ ടു ഫോർട്ടീൻ തൗസൻഡ് ഒക്കെ വരിക ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അഡീഷണലി ചെയ്യാൻ പറ്റും അലോയ് ഒന്നും തരില്ല സാർ നോർമൽ ഇതാണ് വരിക കാരണം നമുക്ക് ബേസ് മോഡൽ ആയതുകൊണ്ട് ആ ഒരു ടൈപ്പേ വരുള്ളൂ അലോയ് നമ്മൾ പമ്പിങ് അലോയ് ചെയ്യും സാർ പക്ഷേ അതിന് ഫോർട്ടീൻ തൗസന്റ് ഒക്കെ വേണ്ടിവരും ഓ ഉറപ്പായും സാർ സാർ നാളെ ഒന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെമോയിൽ ഇപ്പോൾ വണ്ടിയുണ്ടാവും അത് കാണിച്ചുതരാൻ പറ്റും ഓ ക്രെറ്റയിൽ ഇപ്പോൾ ഒരു പ്രീമിയം ലുക്ക് വരുന്നത് ബ്ലാക്കിനാണ് സാർ വണ്ടി ബുക്ക് ചെയ്താൽ നമുക്കൊരു ടൂ വീക്സ് ത്രീ വീക്സ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വണ്ടി സെറ്റ് ചെയ്ത് ഇറക്കി തരാൻ പറ്റും ഡെലിവെർ ചെയ്യാൻ പറ്റും

ഡൗൺ പേയ്മെൻറ്റ് ഇപ്പം നമ്മൾ നയൻറ്റി പെർസെൻറ്റേജ് ആണ് നമ്മളിപ്പോൾ ലോൺ കൊടുക്കുന്നത് ഇപ്പോൾ ഫോർട്ടി പോയിൻറ്റ് ആകുമ്പോൾ ഒരു വൺ പോയിൻറ്റ് ഫോർ ലാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും

ഇല്ല സാർ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ഓക്കെ ആ അത് മതി സാർ പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ മതി